ഹലൊ ഫർസാ ഹോട്ടലല്ലെ ഞാന് ഫുഡ് ഓര്ഡര് ചെയ്തിരുന്നു അവിടുന്ന് രണ്ട് ബിരിയാണിം ഒരു ഫ്രൈഡ് റൈസും ഓര്ഡര് ചെയ്തിരുന്നു അപ്പോള് പിന്നെ എൻ്റെ പേര് ജ്യോതിയാണ് നിങ്ങളെ ലിസ്റ്റിലുള്ള ആളാണ് എന്താണ് അപ്പോള് ആ അഡ്രെസ്സിലല്ല ഇപ്പോള് നിങ്ങള് ഡെലിവറി ചെയ്യണ്ടത് ഞങ്ങളവിടുന്ന് ഇപ്പോള് താമസം മാറിയിട്ട് അവിടെ പയ്യനാട്ടുനിന്നിങ്ങോട്ട് വരുന്നവിടെ നേരെയാണ് നിങ്ങള് പോയിരുന്നത് അമ്പലത്തിൻ്റവിടേക്ക് നേരെ പോയിരുന്നത് അവിടുന്നിങ്ങോട്ട് തിരിച്ച് കുറച്ചുകൂടിയും മുന്നോട്ട് പോന്നിട്ട് ഇടത്ത് സൈഡിലേക്കൊരു റോഡുണ്ട് അവിടെ കരുവാട്ട് കോളനി എന്നു പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോള് താമസിക്കുന്നത് അവിടന്ന് കുറച്ച് പോന്നാല് മതി മഞ്ചേരിയില്നിന്ന് പോന്ന് അത്താണിക്കല് പറഞ്ഞ സ്ഥലത്തുനിന്ന് അമ്പലറൂട്ടിന് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് മേലേക്ക് കുറച്ചുംകൂടി പോരണം അവിടുന്നിങ്ങോട്ട് ലെഫ്റ്റ് ഒര് ലെഫ്റ്റ് സൈഡിലേക്കൊരു റോഡുണ്ട് ആ റോഡിന് പോന്ന് കഴിഞ്ഞാല് ഈ കോളനിയിലാണ് അവിടെ എന്താ ജ്യോതിയുടെ വീടേതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആരും പറഞ്ഞ് തരും പിന്നെ ഞങ്ങളിപ്പോള് ആദ്യം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് അതുകൊണ്ടാണ് പിന്നെ നിങ്ങള് ലിസ്റ്റിലുണ്ടായിരുന്ന ആ അഡ്രസ്സ് മാറ്റിയിട്ട് ഈ ലിസ്റ്റൊന്ന് ഞങ്ങള് ഈ പുതിയ അഡ്രസ്സൊന്ന് ചേർക്കുകയും വേണം നിങ്ങള് കെട്ടോ